ആ ഞാൻ ഒരു ഈ അടുത്ത കാലത്ത് പേപ്പറൊക്കെ നമ്മള് വേസ്റ്റായിട്ട് കളയുമല്ലൊ അപ്പം ഞാനതിൽ നിന്ന് ഇത് എന്തെങ്കിലുമൊരു പ്രയോജനമാകണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു പേപ്പറ് കൊണ്ടൊരു പെൻസില് നിർമ്മാണത്തിലേക്ക് കടന്നു അത് പലര് പല ബുക്കുകളിലൂടെയും പല ഇതിലൂടേയും ഞാൻ വായിച്ചറിഞ്ഞത് അറിവുകളും ഒക്കെ വെച്ചിട്ട് ഞാനൊരു പേപ്പർ പെൻസില് ആ വേസ്റ്റൊക്കെ കളയുന്ന പേപ്പറിനെ ഉപയോഗിച്ചൊരു പെൻസില് നിർമ്മിച്ചു അത് വളരെ എനിക്ക് ഭയങ്കര ജീവിതത്തിൽ വളരെ സന്തോഷവായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒക്കെ നാം വലിച്ചെറിയുന്ന സാധനങ്ങളെ അതൊരു ഉപയോഗപ്രദമാക്കി കഴിഞ്ഞപ്പോളത് എനിക്ക് വളരെ അധികം മാനസികമായ ഉല്ലാസം സന്തോഷവും ഒക്കെ ഉണ്ടായി അതുപോലെത്തന്നത് മറ്റുള്ളവര് കണ്ട് അത് അവരും കണ്ട് അതിൻ്റെ നല്ല അഭിപ്രായങ്ങള് പറഞ്ഞു അതെൻ്റെ ജീവിതത്തില് വളരെ നല്ലയൊരു പോസിറ്റീവായിട്ടൊള്ളൊരു എനർജിയായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പം അത് നിർമ്മാണം അതൊരു വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് കൊണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് അത് മറ്റുള്ളവർക്കും കൂടി അത് ഇത് കണ്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ ഉൾക്കൊണ്ട് കൊണ്ട് പോകാൻ ഉള്ള ഒരു ഊർജ്ജം കൂടിയാണ് ഞാൻ ഈ സമൂഹത്തിന് നൽകുന്നത് ഇത് വളരെയധികം സന്തോഷമായിരുന്നു എൻ്റെ ജീവിതത്തില്